ആദ്യ കാലത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ജീവിതകാലത്തൊക്കെ ആദ്യം സാങ്കേതിക വിദ്യകൾ കാര്യങ്ങൾ ഒക്കെ വളരെ കുറവായിരുന്നു ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും കട്ടപ്പെട്ടി ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിൽ തന്നെ വലിയ കമ്പ്യൂട്ടർ ആയിരിക്കും അതായത് ടി വി പോലെയുള്ള കമ്പ്യൂട്ടർ ആയിരിക്കും ഉണ്ടാവുക അതും നമ്മൾ അങ്ങനത്തെ കാണണമെങ്കിൽ തന്നെ നമുക്ക് വലിയ വലിയ വീടുകളിലൊക്കെ പോയാൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ ഇന്നെന്നു വെച്ചാൽ അതല്ല ലാപ് ടോപ്പ് കാര്യങ്ങളും ലാപ് ടോപ്പും വലിയ ടച്ചിൻ്റെ ഫോണൊന്നും ഇല്ലാത്ത ആൾക്കാർ അതായത് വീടുകൾ വളരെ കുറവാണ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾ ഇപ്പം പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് എഴുതി കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏത് കടയിലും കമ്പ്യൂട്ടർ ഇല്ലാത്ത കടകളില്ല എല്ലാ കാര്യങ്ങളും അതായത് ബാലൻസ് ഷീറ്റ് ടാലി അക്കൗണ്ടിംഗ് പിന്നെ അതായത് ടാക്സ് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലാണ് അപ്പോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ പണി വളരെ കുറവാണ് ആദ്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കുകൂട്ടൽ കാര്യങ്ങളൊക്കെ അതുതന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഉപകാരം തന്നെയാണ് കണക്കുകൾ തെറ്റില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് എപ്പോൾ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ലാപ്പിൽ ഉണ്ടാകും എന്നു വെച്ചാൽ ഒരു കണക്കിന് അത് നല്ലതുമാണ്